ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായൊരു ഹൈക്ക് നമ്മുടെ മിനി ഊട്ടിയിലേതായിരുന്നു മിനീ ഊട്ടിയിലെ ഹൈക്ക് അതിൽക്കയറിക്കഴിഞ്ഞാൽ ചുറ്റുപാടുമുള്ള ഒരുവിധ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ആ ഉയരത്തിൽ നോക്കുമ്പോൾ പല വീടുകളും പല തോട്ടങ്ങളുമെല്ലാം നമുക്ക് വളരേ സുന്ദരമായ ഒരനുഭവത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവമായിട്ടു മാറും അതെല്ലാം നമ്മുടടുത്തേക്കു വരികയാണോ എന്നു പോലും തോന്നിപ്പോകും മിനി ഊട്ടിയിലെ ഹൈക്ക് വളരെയധികം നമ്മെ ആകർഷിക്കുന്നൊരു സംഭവമാണ് ഇനി നമ്മൾ സൂര്യാസ്തമയത്തേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ കന്യാ കുമാരിയിലെ സൂര്യോ സൂര്യാസ്തമയം അത് വളരേധികം ഓർക്കപ്പെടുന്ന ഒന്നാണ് സൂര്യാസ്തമയം പല കടൽ തീരങ്ങളുണ്ടായാലും ഉദാഹരണം കോഴിക്കോട് കൊച്ചി ഒക്കെ ഉണ്ടെങ്കിൽപ്പോലും കന്യാകുമാരിയിലെ സൂര്യാസ്തമയമാണ് ഏറ്റവും മനോഹരമായി തോന്നുക അതേമാതിരി തന്നെ അവിടുത്തെ സൂര്യോദയവും കന്യാകുമാരിയിലെ സൂര്യാസ്തമയവും സൂര്യോദയം രണ്ടും നമുക്ക് മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളായിട്ട് മാറും അതിൻ്റെ ആ പ്രഭാത സൂര്യൻ്റവസ്ഥ കാരണം ആ തങ്ക സൂര്യോദയം കാണണമെങ്കിൽ നമുക്ക് കന്യാകുമാരിയിൽത്തന്നെ പോകണം കന്യാകുമാരിയിലെ സൂര്യ കിരണത്തിന് ഒരു പ്രത്യേക സ്വർണ്ണക്കളറാണ് ആ സ്വർണ്ണ വർണ്ണം കാണുമ്പോൾ തന്നെ നമുക്കിതെത്ര കണ്ടാലും മതി വരാത്തൊരനുഭവമാണ് സൂര്യാസ്തമയം അവിടുത്തെ മോശമല്ല ഒരു പ്രത്യേക സൂര്യൻ്റെ ആ ചുവന്ന ഗോളം കാണണമെങ്കിൽ ആ സൂര്യൻ്റെ ആ ചുവന്ന സ്വർണ്ണ ഗോളം നമുക്ക് കാണമ പൂർണ്ണമായിട്ടും ചുവപ്പ് കാണണമെങ്കിൽ കന്യാകുമാരീ സൂര്യഗ്രഹണം കാണണം അതേമാതിരി തന്നെ സൂര്യ അസ്തമയത്തവും രണ്ടും നമുക്ക് മറക്കാൻ കഴിയാത്ത അനുഭവമാണ്